ഹാലോ ആരായിരുന്നു

ആ അതെ അതെ

ആ ഓക്കേ ഇടക്കിടക്ക് വരുന്നുണ്ടോ ആ എ

ഇതിന് മുൻപ് എവിടേലും കാണിച്ചിട്ടുണ്ടായിരുന്നോ ആ ഓക്കേ ഇ സി ജി അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നോ ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ ആ ഓക്കേ ആ ഓക്കേ ആ ഒന്ന് ഇ സി ജി എടുക്കാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരേണ്ടി വരും ആ അപ്പോൾ ആരെങ്കിലും കൂട്ടീട്ട് വരണം ആ ഒറ്റക്ക് വന്നിട്ട് ആ ഇ സി ജി എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ പിന്നെ നിങ്ങൾ ചൂടുള്ള ചൂട് വെള്ളം കുടിച്ച് നോക്കെട്ടോ

ആ ഹോസ്പിറ്റലിൽ വരുന്നതായിരിക്കും നല്ലത്

ആ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ ആ എ എ എന്താ വർക്ക് ചെയ്യുന്നതെന്താണ് ഹാർഡായിട്ടുള്ള എന്തേലും വർക്ക് ആണോ ചെയ്യണത്

അധികം വെയിറ്റുള്ളതൊന്നും എടുക്കണ്ട അങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ നമ്മൾ തന്നെ നോക്കണം നമ്മളെ എത്രേം പെട്ടന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റുവോ അത്രയും പെട്ടന്ന് ഹോസ്പിറ്റലിലേക്ക് വരുക ആ ഇതിന് വേറെ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നോ വേറെ എന്തെങ്കിലും അസുഖത്തിന് മെഡിസിൻ കഴിക്കുന്നുണ്ടോ

ആ ആ നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തരുവോ എഴുതി എടുക്കാനായിരുന്നു ആ ഓക്കേ

ആ ഓക്കേ ഓക്കേ അപ്പോൾ കൂടെ ആരെങ്കിലും കൂട്ടീട്ട് വേണം ബെസ്റ്റാൻറ്ററിനെ കൂട്ടീട്ട് വരണം കേട്ടോ

ആ ഓക്കേ ശരി